ഞാൻ ചെടികൾ വളർത്താനായി ഇവിടെ എൻ്റെ വീട്ടിലുള്ള മണ്ണ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പം നമ്മള് ഇപ്പം പുതിയതായിട്ട് ഇപ്പം ഒരുപാട് മണ്ണ് ആവിശ്യം ഉണ്ടെങ്കില് നമ്മളിപ്പം പുറത്ത് നിന്നോ എവിടുന്നെങ്കിലും മണ്ണ് എടുക്കുന്നുണ്ടെങ്കില് അവിടുന്നാണ് മണ്ണ് കൊണ്ടുപോയി ഇടുക അല്ലാതെ നമ്മള് വീട്ടിൽ തന്നെയുള്ള മണ്ണാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ ചെടികളെ വളർത്താൻ വേണ്ടിയിട്ട് ജൈവ വളം ഉപയോഗിക്കാറുണ്ട് ഇപ്പം നമ്മള് നമ്മളുടെ വീട്ടില് ഇപ്പം ഉള്ളി തോടുകളുണ്ടാകും അതേപോലെ അതുപോലെ പിന്നെ ഉള്ളി തോടും അതുപോലെ ഈ പഴ തോല് അങ്ങനെ ഒരുപാട് മുട്ട മുട്ട തോട് ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ വീട്ടിൽ തന്നെ വരുന്ന വേസ്റ്റ്കളൊക്കെ കൂട്ടിയിട്ടിയിട്ട് അതൊരു കുറച്ചു കാലം നിൽക്കുമ്പോൾ അതൊരു ജൈവ വളമായിട്ട് മാറുമ്പോൾ അത് തന്നെ ആണ് ഇട്ടുകൊടുക്കാറ് പിന്നെ ഇപ്പോൾ ഇപ്പം കടകളിൽ നിന്നൊക്കെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ ഒക്കെ പോയിട്ട് കടകളിൽ നിന്നും ഇപ്പം ചായ കടയിലൊക്കെ വേസ്റ്റ് ഇപ്പം ബാക്കിലൊക്കെ വേസ്റ്റ് ഇടുമല്ലോ മറ്റേ പഴ തൊലിയും അതുപോലെ ചാ ഈ ചായയുടെ ചായകാച്ചിയ അതിൻ്റെ ചണ്ടിയും ഒക്കെ ഇടുന്നത് അതൊരു കറുത്ത ഒരു മണ്ണ് പോലെ ഉണ്ടാകും അതൊക്കെ കൊണ്ട് പോയിട്ട് ഇടാറുണ്ട് പിന്നെ അതുപോലെ എന്തെങ്കിലും ഇപ്പം ചെടികൾക്ക് എന്തെങ്കിലും ഒരു പുഴുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കീടങ്ങളോ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു പേസ്റ്റും അതുപോലെ വെളുത്തുള്ളി അരച്ചിട്ട് അതിൻ്റെ നീരും അതൊക്കെ കൂടി ചേർന്ന് ഒരു വളം പോലെ ആക്കി ഒരു മരുന്നുപോലെ ആക്കി അതൊക്കെയാണ് അടിച്ചിട്ട് കൊടുക്കാറ്